കർഷകർ മൃഗത്തിൻ്റെ മാലിന്യം വളരെ നന്നായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അത് അത് ഉണക്കി പൊടിച്ച് വളമായിട്ടുപയോഗിക്കുക ഉണക്കി പൊടിച്ച് പിന്നെ മറ്റുള്ളവർക്ക് നൽകുക അന്ന് എനിക്കറിയാവുന്ന കർഷകര് ചാണകം ആണേലും ആട്ടിൻകാട്ടവാണേലുവൊക്കെ ഉണക്കി അത് അത് ഒരു വരുമാന മാർഗ്ഗമാണ് ആ കടകളിൽപ്പോലും ചാണകപ്പൊടിയും ആട്ടും ആട്ടും കാട്ടവുമൊക്കെ പിന്നെ കാഷ്ഠവുമൊക്കെ കടകളിൽ പോലും വിൽപ്പനക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ നോക്കുവാണെങ്കില് അവടെയിവിടെയും വലിച്ചുവാരിയിടാതെ ഇത് ഉണക്കി സംരക്ഷിച്ച് ഉണക്കിയത് അവർക്ക് തന്നെ ഒര് ലാഭം കിട്ടത്തക്ക രീതിയിൽ അവര് ഉണ്ടാക്കുകയാണ് അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട് അപ്പോൾ ആടിൻ്റെ മാടിൻറ്റെയോ വല്ല മൃഗങ്ങളുടെ മാലിന്യം മറ്റുള്ളവർക്ക് ദോഷമാകാതെ എല്ലാവർ അവര് അവർക്ക് വളർത്ത്ന്നവർക്കത് ഗുണകരമായ രീതിയില് കൈകാര്യം ചെയ്യാനായിട്ട് അവർക്ക് പറ്റണം അതിന് അറിയാൻ അതറിയാൻ പാടില്ലാത്തവര് അത് ബോധവൽക്കരിക്കണം അത് പാഴാക്കിക്കളഞ്ഞാല് മണ്ണിനും ദോഷവാണ് അത്പോലെതന്നെ അടുത്തടുത്ത അടുത്ത് താമസിക്കുന്ന ആളുകൾക്കും ദോഷവാണ് അത് അത് ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് അത്കൊണ്ട് അത് സംസ്കരിക്കാനും അത് വേണ്ടരീതീയിൽ കൈകാര്യം ചെയ്യാനും അറിയാൻ പാടില്ലാത്തവരെ ബോധവൽക്കരിക്കണം അത് ജൈവവളമായ്ട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ഇന്ന് എല്ലാം ഒരുമ ഒരൂ മൃഗങ്ങളെ വളർത്തുന്നവരൊക്കത്തന്നെ വളരെ പോസിറ്റീവായ്ട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് അപ്പോൾ അത് നന്നായിട്ട് സംസ്ക്കരിച്ച് മറ്റുള്ളവർക്കും ഉപയോഗമാകത്തക്കരീതീയില് അവരവർക്ക് അവരവർക്കും മറ്റുള്ളവർക്കും ഉപയോഗമാകത്തക്ക രീതിയില് അത് കൈകാര്യം ചെയ്താല് നമ്മുടെ മൃഗ വളർത്തലിനെക്കൊണ്ട് കർഷകർക്ക് വളരെ നേട്ടം ഉണ്ടാകും എന്നാൽ ഇത് ഒത്തിരി കുറച്ച് ആളുകൾ എങ്കിലും ശരിയായി ഉപയോഗിക്കാത്ത ആളുകളുണ്ട് എവിടെ എങ്കിലും കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ വരുന്ന അവശിഷ്ടങ്ങൾ ഇടുക അത് മലിനമായിട്ട് വെള്ളവും മറ്റുള്ള മറ്റ് കൃമികീടങ്ങളുവൊക്കെ വന്ന്

മണ്ണിന് ഫലഭൂഷ്ടമായി മാറ്റത്തക്ക രീതിയില് കൊണ്ട് വരുന്നത് വളരെ ഉചിതമായിരിക്കും മൃഗങ്ങളുടെ മാലിന്യം വളമാണെങ്കിൽപ്പോലും അത് വെള്ളം കെട്ടി കിടന്നാല് മാലിന്യമാകും അത് പുഴുവാകും അത് മണ്ണിനും ദോഷമായി വരും അത് ഉണ്ടാക്കാതെ ആണേലും അതിൽ നിന്ന് അതുപോലെതന്നെ പച്ചക്ക് ചെടികൾക്കും പച്ചക്കറികൾക്കും ഇടുവാണെങ്കില് ആ പച്ചക്കറികളൊക്കെ അല്ലെങ്കിൽ കൃഷിയൊക്കെ നശിച്ച് പോകാനും സാധ്യത ഉണ്ട് അത് വളരേ ശ്രദ്ധയോടുകൂടി അതിൻ്റെ മാലിന്യം കൈകാര്യം ചെയ്യണം ഇല്ലെങ്കില് അത് അവരെ അവര് ജീവിക്കാൻവേണ്ടി ചെയ്യ്ന്നത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമായിട്ട് മാറും അപ്പോൾ അങ്ങനെ ഉള്ള കാര്യങ്ങളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് അത് മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ രീതിയില് വരാതെ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ വന്നിട്ട് അവർക്കും പ്രയോജനകരായ രീതിയില് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ ഇന്ന് കടകളിൽ ചെന്ന് രാസവളം ഉപയോഗിച്ചിരുന്നവരാണ് കൂടുതലും അതിൻറ്റേതായ ഭവിഷ്യത്തുകള് ഇന്ന് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൽനിന്നൊക്ക വ്യത്യാസമായി ബോധവൽക്കരണത്തോടുകൂടി ജൈവവളമായിട്ട് ഈ മാലിന്യങ്ങള് നൽകത്തക്ക രീതിയില് വരാനായിട്ട് അതിനൊള്ള ബോധവൽക്കരണങ്ങൾ നല്കേണ്ടത് അത്യാവശ്യമാണ് നന്നായിട്ട് പരിപാലിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അതിൽ നിന്നും വരുമാനം എടുക്കുന്നവരുണ്ട് ആ വരുമാന ആ മൃഗത്തിൻ്റെ മാലിന്യം വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുന്നവരുണ്ട് അപ്പം അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താല് വീടിനും നാടിനും പ്രയോജനകരമായിരിക്കും മറ്റുള്ളവരെ കൂടി പരിഗണിച്ച് വേണം മൃഗങ്ങളെ വളർത്താൻ കാരണം അട് മുമ്പ് ഉള്ളത് പോലെ അല്ല ഇപ്പോൾ അടുത്തടുത്ത് വീടുകളാണ് അത്കൊണ്ട് അതിൻ്റെ മണം അതുപോലെ തന്നെ മാലിന്യമൊക്കെ മറ്റുള്ളവർക്ക് ദോഷം ചെയ്യും അതുകൊണ്ട് മറ്റുള്ളവരെ മാനിച്ച് വേണം മൃഗങ്ങളെ വളർത്താനായിട്ട് ആ വള അത് അതിൻ്റെ മാലിന്യം ജൈവവളമാക്കി മണ്ണിനും നാടിനും നല്ല നല്ല രീതിയിൽ വരത്തക്ക രീതീയിൽ ഉള്ള അപ്പോൾ അതിൽനിന്നും അവർക്കൊരു ലാഭമുണ്ട് നേട്ടവും ഉണ്ട് ് അതിൽനിന്നും നേട്ടമുള്ളത് നേട്ടമുള്ള കാര്യങ്ങളൊരിക്കലും നശിപ്പിച്ച് കളയരുത് ഒര് ചെറിയ ചെറിയ കാര്യമാണേൽ പോലും അതിൽന്ന് കിട്ടുന്ന സമ്പാദ്യം വളരെ വലുതാണ് കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ ഒത്തിരി സാമ്പത്തികം വേണം അപ്പം ആ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കണം എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ കടമ അതിന് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾപോലും ശ്രദ്ധവെച്ച് ജീവിതം മുന്നോട്ട് കൊണ്ട്പോകുമ്പഴത്തേക്ക് അവർക്ക് ജീവിതം നല്ലരീതിയില് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെ കർഷകര് മൃഗങ്ങളോട് അവരോട് ദയയും സ്നേഹത്തോട് കൂടി പെരുമാറുകയും വേണം അവരേയും പരിപാലിക്കണം അവരുടെ മാലിന്യങ്ങൾ അവർക്ക് തന്നെ ദോഷമാകാത്ത രീതിയില് മാലിന്യത്തിൽ കിടന്ന് അവർക്കും ബുദ്ധിമുട്ടുണ്ടാകാത്തക്ക രീതിയിൽ അത് മുഴുവനും നല്ല ഭംഗിയായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ട് അവരെ സംരക്ഷിക്കേണ്ടത് കർഷകരുടെ കടമയാണ്